അഞ്ച് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പത്തൊമ്പത് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി നാല് ഏപ്രിൽ രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല്